ചേട്ടാ സിബിഎസ്സി കാർ സർവിസല്ലേ ഞാൻ വിളിച്ചതെ എനിക്കൊരു ട്രിപ്പ് ബുക്ക് ചെയ്യാനായിരുന്നു ഇപ്പോ അടുത്ത ബുധനാഴ്ച്ചയാണെനിക്ക് വേണ്ടത് രാവിലെ ഒരു പത്ത് പത് പത്ത് മണിക്ക് ആ പത്തരക്കായ മതി പത്തരയ്ക്ക് കുഴൽമന്ദത്ത്ന്ന് എന്നെ പിക്ക് ചെയ്തിട്ട് ആലുവ അല്ലങ്കി എട എടപ്പള്ളി ജംഗ്ഷനില് എത്തണം എടപ്പളളി ജംഗ്ഷൻ അപ്പോൾ അത് എങ്ങനെയാണ് അതിൻ്റെ റേറ്റും കാര്യങ്ങളും പിന്നെ നമുക്ക് വലിയ ഇതൊന്നും വേണ്ട ഞാന് ആ രണ്ടാളുണ്ടാകും ഞങ്ങള് കുറച്ച് ബാഗും കാര്യങ്ങളും അത്രേ ഉള്ളൂ അപ്പോൾ വീട് കോട്ടായിലാണ് പക്ഷെ എന്നെ ഇവിടെ കുഴൽമന്ദത്ത് ഞാൻ കുഴൽമന്ദത്ത്ന്ന് നിന്നാൽ മതി ഞാൻ കുഴൽമന്ദത്ത് നിക്കാം അപ്പം അവിടുന്ന് പിക്ക് അപ്പ് അവിട്ന്ന് പിക്ക് അപ്പ് ചെയ്താൽ മതി ഓക്കേ അപ്പം എത്ര സമയം കൊണ്ട് എത്താൻ പറ്റും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയണം പിന്നെ റേയ്റ്റ് എത്രയാകും അതൊന്ന് അറിയണം